ആ കുഞ്ഞാനാണോ നമ്മുടെ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ ഇടപാടൊക്കെ ഉള്ള സ്ഥലക്കച്ചവടമുള്ള ആ ആ എഹ് ഞാൻ ഇവിടെ കോട്ടയം ജില്ലയിലെ തോട്ടയ്ക്കാട് ആ തോട്ടയ്ക്കാട് തോട്ടയ്ക്കാട് സെൻ്റ് ജോർജ് പള്ളിയുടെ അടുത്ത് തന്നെ എനിക്ക് ഒരു വീട് വയ്ക്കാനായിട്ട് ഒരു പത്ത് സെൻ്റ് സ്ഥലവും വെള്ളവും വഴിയും കറണ്ടുമെല്ലാം ഉള്ളതായിരിക്കണം സൗകര്യമുള്ളതും നമ്മുടെ കസ്റ്റഡിയിൽ എവിടേലുമുണ്ടോ മെയ്ൻ മെയ്ൻ മെയ്ൻ മെയ്ൻ റോഡ് എന്നല്ല എന്നാലും വണ്ടിവരുന്ന നല്ല റോഡ് ടാർ റോഡ് ആയിരിക്കണം ആ അതെ അതെ നമ്മക്ക് ഒരു സെൻ്റിന് കുറച്ച് കിട്ടാനാണ് ഏറ്റവും നോക്കുന്നത് നമുക്ക് അധികം സാമ്പത്തികം ഇല്ല ആ നമുക്ക എത്രയാണ് എത്ര ശതമാനമാണ് എത്ര ശതമാനമാണ് ഒരു ശതമാനോ രണ്ട് ആ ആ ഓക്കേ ആ അപ്പം ഞാൻ ഒരു ശതമാനം തന്നാൽ മതിയല്ലോ ആ ആ ആ ആ ആ ആ അത് കുഴപ്പമില്ല അപ്പം നമ്മുടെ കസ്റ്റഡിയിൽ എവിടെ എങ്കിലും നല്ല സ്ഥലമുണ്ടോ വഴി വഴിക്ക് മോളിലായിരിക്കണം

ലെവല് മോൾളാരിക്കണം ആ കുഴപ്പമില്ല കുഴപ്പമില്ല വെള്ളം കിട്ടണം നമുക്ക് ബസ് റൂട്ട് വേണ്ട ബസ് റൂട്ട് ബസ് റൂട്ട് വേണ്ട പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡ് മതി

ഓ അതൊക്കെ കൂടുതൽ അല്ലേ തോട്ടക്കാട് ഭാഗത്ത് നമ്മുടെ ഈ ഭാഗത്ത് എവീടേലും ആ കോട്ടയം ജില്ലയിൽ ടൗണിൽ വേണ്ട ടൗണിൽ വേണ്ട അത് തന്നെ നമുക്ക് ഗ്രാമപ്രദേശം എവിടേലും മതി ആ എന്നാലും ഇപ്പോൾ അത്രയും വിലയുണ്ടോ ഇപ്പം വിലക്കുറവല്ലേ കച്ചവടം നടക്കുന്നില്ലല്ലോ

ആ എന്നാ സ്ഥലമാണ് എന്തുമാത്രമുണ്ട് സ്ഥലം

അവർ എത്രയാണ് ചോദിക്കുന്നത് ആ മറ്റേത് ആണെങ്കിലോ പത്ത് സെൻ്റ് മറ്റേ ഈ പതിനഞ്ച് സെൻ്റ് പതിനഞ്ച് സെൻ്റോ ആ അന്നേരം അ എന്നാ വില വരും

അത് എങ്ങനെ ആയാലും ഒരു ഒന്നര രൂപയ്ക് കിട്ടുമായിരിക്കും അല്ലേ ആ എന്നാൽ ശരി നമുക്ക് ഒന്ന് കാണാമല്ലോ കാണാൻ എന്നാ സൗകര്യം ആണോ അങ്ങനെ എന്നാൽ നമുക്ക് രണ്ടു ദിവസത്തിനകം പോയാലോ ഉം ശരി ഓക്കെ